ഹലോ ഹലോ ആ ഇത് ധന്യയല്ലേ അതെ ഞാൻ ഒരു എൽ ഐ സി ഏജന്റാ മാഡം എന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ ഞാ മാഡത്തെ കൊണ്ടൊരു പോളിസി എടുപ്പിച്ചായിരുന്നു ആ എന്റെ പേര് ഡേയ്സിന്നാണ് ഞാൻ ഞാൻ നേരത്തെ നേരത്തെ മാഡത്തെ കൊണ്ടൊരു പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കവറേജെല്ലാം അതായത് അത് ക്ലോസ് ചെയ്തായിരുന്നല്ലോ മാഡം ക്ലോസ് ചെയ്തേ ക്ലോസ് ചെയ്തു ആ അപ്പോൾ അതിനെ അത് എങ്ങനെ ഉണ്ടായിരുന്നു മാഡം അപ്പം ക്ലോസ് ചെയ്തപ്പോൾ ആന്നാ വളരെ പ്രയോജനപ്പെട്ടായിരുന്നോ ആ അടച്ചതിനെക്കാളും എത്ര രൂപേം കൂടെ അധികം കിട്ടി ആയിരുന്നു ആ മൂന്നിരട്ടിയോളം അധികം കിട്ടി ആ അപ്പം പിന്നെ അത് വളരെ പ്രോഫിറ്റായിട്ടുള്ളൊരു പോളിസി തന്നെയായിരുന്നല്ലോ മാഡം അതെ അതെ ആ നല്ലതാണ് ആ അപ്പോം പിന്നെ മാഡം ഇനിയിപ്പോൾ ഒരു പുതിയ പോളിസിയിപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത് അത് ഇതിനെക്കാളും ബെനിഫിറ്റാണ് ബെനിഫിറ്റ് മീൻസ് നമുക്ക് അത് ഇതുകൊണ്ട് ഒരുപാട് കവറേജ് കിട്ടുന്നു നമുക്ക് നമ്മുടെ ഡെത്ത് ഡെത്ത് ഫെസിലിറ്റീസ് ഡെത്തിന്റെ ഇൻകം കിട്ടുന്നുണ്ട് മരണത്തിൽ പെട്ടന്ന് എന്തെങ്കിലും ആക്സിഡെന്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആക്സിഡെന്റ് ബെനിഫിറ്റുണ്ട് അപ്പോം നമ്മൾ നല്ല ഒരെമൌണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ഇതിപ്പോൾ ഇത്രയും പേരുടെ കവറേജ് ഫാമിലി കവറേജുള്ളതാണ് മാഡം ഫാമിലി കവറേജുളളതാണ് അപ്പോൾ നമുക്ക് ഇപ്പം ഇയർലി ഇയർലി ഒരു റ്റു ലാക്ക്സൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇയർലി അത് ഇൻഷുറൻസ് അ ആ റ്റു ലാക്ക്സ് ഇയർലി ഇയർലി റ്റു ലാക്ക്സൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഏ നമുക്ക് എഡിൽവൈസിന്റെ എഡിൽവൈസിന്റെ ഇൻഷുറൻസാണ് എഡിൽവൈസിന്റെ ഫാമിലി ഇൻഷുറൻസാണ് അപ്പോൾ ഈ എഡിൽവൈസിന്റെ ഇൻഷുറൻസിൽ ധാരാളം കവറേജ് ധാരാളം കവറേജെന്ന് വെച്ചാൽ നമുക്കത് ഓരോ വർഷം അപ്പം ഫൈവ് ഇയേഴ്സ് അതിന്റെ ലോക്കിങ് പിരീഡാണ് ഫൈവ് ഇയേഴ്സ് നമ്മൾ അടക്കണം ഫൈവ് ഇയേഴ്സ് നമ്മൾ അടക്കണം എഗൈൻ ഫൈവ് ഇയേഴ്സ് ലോക്കിങ് പിരീഡാണ് അപ്പോൾ നമുക്ക് രണ്ടര ലക്ഷം രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വൺ ഇയർൽ നമുക്ക് അതിന്റെ ഡെത്ത് ബെനിഫിറ്റുണ്ട് പിന്നെ അതിനു ശേഷം നമുക്ക് ഇതുണ്ട് ആരോഗ്യ ഇൻഷുറൻസിന്റെ കണക്ക് അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് അതിന്റെ കവറേജ് കവറേജ് അതായത് ഹെൽത്ത് ഇൻഷുറൻസായിട്ട് നമുക്കത് കൊണ്ട് പോവാൻ കൊണ്ട് പോവാൻ പറ്റും ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് അതിന്റെ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് നമ്മൾ രണ്ടര ലക്ഷം രൂപ വെച്ചടക്കണം അതിനു ശേഷം ഫൈവ് ഇയേഴ്സ് നമ്മൾ ലോക്കിങ് പിരീഡാണ് ഓക്കെ അപ്പോൾ ഈ ലോക്കിങ് പിരീഡ് സമയത്ത് നമുക്ക് നല്ല നല്ല ഒരു എത്രയോ എയിറ്റ് പേസന്റേജ് കൂടുതലുള്ള

പത്ത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ എന്തോ ഏജ് ലിമിറ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിലും സിക്സ്റ്റി ഫൈവ് വരെ അതായത് കണ്ടിന്യൂസായിട്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് വയസ്സ് വരെ നമുക്കെടുക്കാൻ പറ്റും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ലോക്കിങ് പിരീഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്കത് വിത്ത്ഡ്രോ ചെയ്യത്തക്ക രീതീലുള്ള അതായത് നമ്മുടെ നോമിനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിത്ത്ഡ്രോ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഒരു ഒരു ഇൻഷുറൻസാണ് അപ്പോൾ ആ ഇൻഷുറൻസ് മാഡം ഒന്ന് ഒന്ന് താൽപ്പര്യം കാണിക്കണം ആ ഞാനൊരു ദിവസം വരാം അപ്പോൾ മാഡത്തിന്റെ മാഡത്തിന്റെ ഡീറ്റൈൽസും ബാക്കി കാര്യങ്ങൾ നമ്മുടെ ആധാറിന്റെ കോപ്പി ബാക്കി കാര്യങ്ങൾ ഒക്കെ എടുത്ത് നമ്മൾ കൃത്യമായിട്ട് വെച്ചേക്കുവാണ് ഓക്കെ താങ്ക് യൂ ഞാൻ ഒരു ദിവസം വന്നേക്കാം ഓക്കെ ഓക്കെ ഓക്കെ